ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ട് തീരുമാനമെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്ലസ് ടു വരെ ഞാൻ പഠിച്ചത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പഠിച്ചു പോയിരുന്നു അതു കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു അത് ആ സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോവാം എന്നുള്ള ഒരു മെന്റാലിറ്റി വന്നത് ശേഷം ഞാനൊരു സിവിൽ എൻജിനീയറിങ് കോഴ്സ് എടുക്കുകയും ശേഷം ആ കോളേജിൽ പോയി പഠിച്ച് പാസായി ദെൻ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ബിൽഡിംഗിന് ബിൽഡിങ്ങിൻ്റെ ഒക്കെ വർക്കിന് ഒക്കെ കയറുകയും ഒക്കെ ഉണ്ടായി അപ്പോൾ അതിനുശേഷമാണ് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ഒക്കെ ഒരു സ്റ്റേബിൾ ആയിട്ട് വന്നത് അപ്പോൾ എന്താ പറയുക ആ ഒരു തീരുമാനം ഞാൻ ആ സമയത്ത് എടുത്തില്ലായിരുന്നുവെങ്കിൽ അത് ഒരു വലിയ ഫാൾട്ടായിട്ട് വന്നേനെ എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ എന്താ പറയുക ഉപദേശങ്ങൾ ഒക്കെ കുറേയൊക്കെ സ്വീകരിക്കുന്നത് നല്ലത് തന്നെയാണ് അതല്ല സ്വന്തം കാര്യം നോക്കാൻ കഴിയുകയാണെങ്കിൽ അതിലും ബെറ്ററായിട്ട് വേറൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്